ഇന്ത്യയിൽ എല്ലാവരും അഭിമുഖീകരിച്ചു കൊണ്ടിരിക്കുന്ന ഏറ്റവും വലിയ പ്രശ്നമാണ് സ്ത്രീ സുരക്ഷ സ്ത്രീകള്ക്ക് ഒരു സമയം കഴിഞ്ഞാൽ പുറത്തോട്ട് പോവാൻ ഒക്കാതിരിക്കുക വീടുകളിൽ ഭര്ത്താവ് വഴക്കുണ്ടാക്കുക ഭര്ത്താവായിട്ടുള്ള വഴക്ക് അമ്മായിയമ്മ ആയിട്ടുള്ള പോര് അങ്ങനെ ഓരോ കാര്യങ്ങളിലും സ്ത്രീകൾ സുരക്ഷിതരല്ലാത്ത രീതിയിലാണ് ഉള്ളത് പിന്നെ ഒന്ന് ഗതാഗത തടസങ്ങള് ട്രാഫിക് ജാമുകൾ അതായത് ഒരു ഇടത്ത് നേരത്തെ പോകാൻ ഒരുങ്ങി ഇറങ്ങുമ്പം ഗതാഗതത്തിന്റെ തടസങ്ങൾ ട്രാഫിക് ബ്ലോക്ക് ശരിക്കും പരിഹരിക്കേണ്ട ഒന്നാണ് അങ്ങനെയുള്ള കുഴപ്പങ്ങള് കുറേ ഉണ്ട് പിന്നെ മൈഗ്രേഷന് ഏറ്റവും ഇമ്പോട്ടൻ്റ് ആയിട്ടുള്ള ഒന്നാണ് കേരളത്തിലുള്ള പഠിച്ച് പ്ലസ് റ്റു വരെയെക്കെ പഠിച്ചു കഴിഞ്ഞ കുട്ടികള് നേര്സിംഗ് അല്ലാതെയുള്ള കോഴ്സുകള് ബിരുദം ബിരുദാനന്തര ബിരുദം അങ്ങനെയുള്ളതൊക്കെ ചെയ്യാന് പുറത്തോട്ട് കൂട്ടത്തോടെ പോവുന്നു അങ്ങനെ കേരളത്തിൽ ആരും പിന്നീട് പഠിക്കാതാവുകയും ജനസംഖ്യ കുറയുകയും ചെയ്യുന്നു പിന്നെ സാക്ഷരതാ കുറവ് ഒരു വലിയ കേരളം അഭിമുഖീകരിച്ചു കൊണ്ടിരിക്കുന്നത് ഇന്ത്യയും ആയാലും അഭിമുഖീകരിച്ചു കൊണ്ടിരിക്കുന്നത് ഏറ്റവും വലിയ കുഴപ്പമാണ് പിന്നെ പട്ടിണി ദാരിദ്ര്യം പല ഇടങ്ങളിലും ഒരു നേരത്തേക്കുള്ള അന്നം കഴിക്കാന് കിട്ടാതായി കുട്ടികള് ഉൾപ്പെടെ മരിക്കുകയും ചെയ്യുന്നത് വലിയ ഒരു കുഴപ്പമാണ് പിന്നെ കുടിവെള്ള പ്രശ്നം പല ഇടങ്ങളിലും ഒരു തുള്ളി വെള്ളം പോലും കിട്ടാതാവുകയും ഗവണ്മെന്റിന്റെ പൊതു പൈപ്പുകള് പല ഇടങ്ങളിൽ ഉണ്ടെങ്കിലും അതൊന്നും വര്ക്ക് ചെയ്യാതെ ഇരിക്കുന്ന സംഭവം ഉണ്ടാവുകയും അങ്ങനെയും ഓരോരുത്തർ വെള്ളം കിട്ടാതെ മരിക്കുകയും പട്ടിണിയും ദാരിദ്രിയവുമൊക്കെ നടക്കുകയും ചെയ്യുന്നു പിന്നെ ഹോസ്പിറ്റലുകളുടെ കുറവ് ചുരുങ്ങിയ പട്ടണങ്ങളിലൊന്നും ആശുപത്രി സൗകര്യങ്ങൾ കിട്ടുകയോ അവർക്ക് പുറത്തോട്ട് പോവാനുള്ള ഗതാഗതമോ ഒന്നും കിട്ടാതിരിക്കുകയും അങ്ങനെ പല തടസങ്ങളും പല ഇടത്തും നേരിട്ടു കൊണ്ടിരിക്കുന്ന ഒന്നാണ്